ഞങ്ങളുടെ പ്രദേശത്ത് ഒത്തിരിയധികം സാംസ്കാരിക സംഘങ്ങൾ ഉണ്ട് ഞങ്ങളുടെ സംസ്കാരത്തിന് പുറത്തുള്ളവരായിട്ട് ഞങ്ങൾ ഇടപഴകാറുണ്ട് എല്ലാവരും ഒത്തൊരുമയോടെയാണ് സംസ്കാരങ്ങള് പലതാണേലും അവരുടെ ആചാരങ്ങള് പലതാണേലും എല്ലാവരും ഒരുമ ഒരേ മനുഷ്യരെന്ന ആ ഒരു രീതിയിലാണ് പരസ്പരം ഇടപഴകുന്നതും കാര്യങ്ങളും നടത്തുന്നതൊക്കെ സാംസ്കാരിക സംഘങ്ങളുടെ എണ്ണം കറക്ട് ആയൊരു എണ്ണം നമുക്ക് ഇല്ലെങ്കിലും സാംസ്കാരിക സംഘങ്ങൾ അനേകമുണ്ട് എല്ലാവര്ക്കും അവരുടേതായ സംസ്കരങ്ങളുണ്ട് അവരുടെ സംസാരവും അല്ലെങ്കിലവരുടെ ആ അചാരാനുഷ്ഠാനങ്ങളും അവരുടെ ജീവിതരീതി രീതികളും കഴിക്കുന്ന ഭക്ഷണവും അവരുടെ സംസാരം പൊയ്മ അവരുടെ എല്ലാ സംസ്കാരങ്ങള്ക്ക് അനുസരിച്ച് സാംസ്കാരികവായ അവരുടെ പശ്ചാത്തലമനുസരിച്ച് എല്ലാത്തിനും വെ വ്യത്യസ്തത ഉണ്ട് ഈ വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ് അവർക്കൊക്കെ അവരുടെ പല സംസ്കാരങ്ങള് രൂപപ്പെട്ടതും അവര് സംസ്കാരങ്ങള് നിലനില്ക്കുന്നതുവൊക്കെ സംസ്കാരങ്ങള് പുറത്തുള്ളവരായി ഇടപഴകുന്നതിൽ ആർക്കും ഒരു പരിമിതികളുവില്ല പല സംസ്കാരങ്ങളില് ജീവിക്കുന്നത് എങ്കിലും എല്ലാവരും പരസ്പരം ഇടപഴകിയും പരസ്പരം പല സാഹചര്യങ്ങളിൽ ആവശ്യങ്ങള് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒരേ മനുഷ്യരായി ഒരു മനുഷ്യന്റെ ഒരു അല്ലെൽ ഒര് മനുഷ്യനെന്ന നിലയില് പരസ്പരം സഹായിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു അവരുടെ സംസ്കാരങ്ങളും ഓരോ രീതിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു പക്ഷേ ഒത്തൊരുമയോടെ എല്ലാവരും ജീവിക്കാന് വേണ്ടി ശ്രമിക്കുന്നു സംസ്കാരത്തിന്റെ പേരില് പരസ്പരം അങ്ങോട്ടോടും പ്രശ്നങ്ങളൊന്നും ആരുടെ ഇടയിലും ഉണ്ടാകാറില്ല സംസ്കാരങ്ങളങ്ങനെ പല രീതിയിലും ഒത്തൊരുമയോടെ പോകുന്നു